എനിക്ക് എത്ര സമയം ഇല്ലേലും ചേരുവകളെത്ര കുറഞ്ഞാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാ ണ് അതൊരു കറിയാണ് സാമ്പാർ കാരണം എന്താന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു വിഭവമാണി സാമ്പാർ അത് ഒന്നാമത് അതിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് മൂത്തയാൾക്ക് അപ്പം ഞാൻ സാമ്പാറിന് ഒരു പക്ഷേ എല്ലാ പച്ചക്കറികളും ഇല്ലെങ്കിലും അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആണെന്ന് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഈ സാമ്പാർ ഒരു പക്ഷേ ചിലപ്പം പച്ചക്കറികളെല്ലാം കാണുകേലാ ഇപ്പം ചിലപ്പം പരിപ്പും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും സവാളയും രണ്ട് തക്കാളിപ്പഴം ഒക്കെ കാണുവൊള്ളു എന്നാലും അത് വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുക അത് ഒരു സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ് പിന്നെ വേറൊരു കാരണം എന്താന്ന് ചോദിച്ചാൽ അത് എളുപ്പമാണ് നമ്മളിതെല്ലാം കുടെ കുക്കറിലേക്കിട്ട് ഒറ്റ വിസിൽ സംഭവം റെഡിയാണ് നമ്മൾ വേറെ അതിന് അരപ്പുണ്ടാക്കാൻ പോകണ്ടാ അരക്കാൻ പോകണ്ടാ അങ്ങനെ എളുപ്പം ഉണ്ടാക്കാവുന്നൊരു കാര്യമാണ് ഈ സാമ്പാർ അത് കൊണ്ട് പതിവായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം എന്ന് ഞാൻ പറയുന്നില്ല ഒരു കറി എന്ന് തന്നെ പറയാം ഈ സാമ്പാർ അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു ഇതാണ് ഇഡലി എന്താന്ന് ചോദിച്ചാൽ അതും ഈ എളുപ്പം തന്നെ പെട്ടെന്ന് നമുക്ക് രാവിലെ ഉണ്ടാക്കാം അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുത്ത് വിടാം എളുപ്പമാണ് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇഡലി ഇത് രണ്ടും എൻ്റെ സ്ഥിരം തന്നെ ഉള്ള ഒരു രണ്ട് കോംബിനേഷാനുവാണ് സ്ഥിരം ഉണ്ടാക്കുന്ന രണ്ട് ഭക്ഷണവുമാണ് കാരണം അതിൻ്റെ പ്രത്യേകിച്ച് കാരണം അത് കുട്ടികൾക്കിഷ്ടം അത് തന്നെയാണ് മെയ്നായിട്ട് അതിൻ്റെ കാരണം